ഇവിടെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ പാലായിൽ അത്ലറ്റുകളെ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കായിക കേന്ദ്രം ഉണ്ട് അത് പോലെ തന്നെ കോട്ടയം ടൗണിലും ഒരു കാ കായിക കേന്ദ്രം ഉണ്ട് അവിടെയൊക്കെ എല്ലാ സൗകര്യങ്ങളും അവരെക്കൊണ്ട് കഴിയാവുന്നത്ര നല്ല സൗകര്യങ്ങൾ അവർ വിദ്യാർഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഓട്ടത്തിനാണെങ്കിൽ നല്ല സിന്തറ്റിക് ട്രാക്കുകളും അതുപോലെതന്നെ നല്ല ഷൂസുകളും അതിൻ്റെ ആ ഡ്രസ്സും എല്ലാം അവർ നൽകിവരുന്നുള്ളതായിട്ടാണ് എനിക്ക് എൻ്റെ അറിവ് പിന്നെ അതുപോലെ തന്നെ ട്രാക്കെക്കേ ആണെങ്കിലും നല്ല ട്രാക്ക് ആണെങ്കില് അവർക്ക് നന്നായിട്ട് പരിശീലിക്കാൻ പറ്റത്തുള്ളൂ അത്ലറ്റികൾക്കൊക്കെ നല്ല രീതിയിൽ പരിശീലനം നടത്തണമെങ്കിൽ ട്രാക്കും ആ ഷൂസും ഒക്കെ അവർക്ക് അതിന്റെ യോചിച്ച രീതിയിൽ തന്നെ വേണം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മാക്സിമം അവർ കൊടുക്കുന്നത് കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർക്കത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം കോട്ടയം സെൻട്രലിലുള്ള ഒരു പരിശീലന സ്ഥാപനമാണെങ്കിൽ അവർ ഒരു കിറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ആ ഒരു അത്ലറ്റിക്കിനു വേണ്ട ഓരോ ഏത് ഐറ്റമാണോ ആ ഐറ്റത്തിനു വേണ്ട വേണ്ടതായ രീതിയിലുള്ള കിറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആ കിറ്റ് ഒരു ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് വളരെ ഉപകാരമാണ് ആ കിറ്റ്